ഹലോ ഞാൻ ഹർഷയാണ് സംസാരിക്കുന്നത് ഇത് ഭാരത് വിദ്യാഭവൻ സ്കൂൾ അല്ലേ ഞാൻ നിങ്ങളുടെ സ്കൂളിനെ ആയിട്ട് ബന്ധപ്പെട്ടത് എന്താണെന്ന് വച്ചാൽ എൻ്റെ കുട്ടിയെ നിങ്ങളുടെ സ്കൂളിൽ ചേർക്കാം ചേർത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല താൽപ്പര്യം ഉണ്ട് ആ പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു നിങ്ങളുടെ സ്കൂള് ധാരാളം കാര്യങ്ങൾ ഒരു കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നു കൂടെ ഡീറ്റൈൽഡ് ആയിട്ട് അറിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കുട്ടിക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിനെ വളർത്തുന്നത് എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ വളർത്തിയെടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണവിടെ ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്നെല്ലാം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതും അതൊക്കെ എന്തൊക്കെയാണെന്ന് എന്ന് ആ താങ്കൾക്ക് പറഞ്ഞ് തരാൻ സാധിക്കുമോ പിന്നെ അത് മാത്രമല്ല ഞാൻ പ്രധാനമായും നിങ്ങളെ വിളിച്ചതെന്താണെന്ന് വച്ചാൽ അത് ആ അവിടുത്തെ നിങ്ങളുടെ സ്കൂളിൻ്റെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് ഇപ്പോൾ എൻ്റെ കുട്ടിയെ ചേർക്കുക ആണെന്നുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിക്ക് അവിടെ ആവശ്യമായത് എത്ര ഫീസാണ് എങ്ങനെയാണ് അവിടുത്തെ ഫീസ് ഘടന വരുന്നത് എന്നറിയാൻ ഞാൻ നല്ല വണ്ണം താൽപ്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് കുറിച്ചൊന്ന് എനിക്ക് പറഞ്ഞ് തരാൻ സാധിക്കുമോ എങ്ങനെയാണ് അവിടുത്തെ ഫീസൊക്കെ ഗഡു ഗഡുവായിട്ടാണോ അടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ താൽപര്യപ്പെടുന്നു അപ്പോൾ അതൊന്ന് അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് താങ്കൾക്ക് പറഞ്ഞ് തരാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞ് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഈ ഫീസിൻ്റെ കാര്യം അതൊരു വലിയ ഒരു കാര്യമാണല്ലോ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും അതുകൊണ്ട് അതിനെ കുറിച്ച് നല്ല രീതിയിൽ താൽപര്യപ്പെടുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ അപ്പോൾ അത് നിങ്ങൾ എനിക്ക് എത്രയും പെട്ടന്ന് ഒന്ന് എന്നെ അറിയിക്കണം എന്ന് അന്വേഷിച്ച് അറിയിക്കണമെന്ന് ഞാൻ താൽപര്യപ്പെടുന്നു